ആ ഹലോ ടീച്ചറല്ലേ ആ ആ ഞാനേ ദേവൂവിൻ്റെ അമ്മയായിരുന്നു ആ ആ അവളെ ഇപ്പം ഡാൻസിന് കൊണ്ടാക്കിയല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഒക്കെ ഒന്ന് അറിയാനായിരുന്നു ആ ആ ആണോ ആ ആ ആ ആ

ആ ആ ഓ ഓ ആ ഇവിടെ വീട്ടില് വന്ന് കഴിഞ്ഞിട്ട് ടീച്ചറേ അവള് എന്തുവാണ് സാധാരണ എപ്പഴും വീട്ടിൽ വന്ന് നിന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നതാണ് കെടന്ന് തുള്ളിച്ചാട്ടവും കളികൾ അത് കണ്ടും കൊണ്ടാണ് നമ്മള് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വിടാം എന്ന് കരുതി വിട്ടത് പക്ഷെ വന്ന് നിന്ന് ഞാൻ ഇങ്ങനൊക്കെ ചുമ്മാ മുദ്രകൾ അതൊക്കെ എന്താ ഇങ്ങനെ പറ മോളേ എന്ന് പറയുമ്പോൾ കാണിച്ചൊക്കെ തരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞ് എൻ്റെടുത്ത് ഇത്രയൊക്കെ പഠിപ്പിച്ചമ്മാ ടീച്ചർ ടീച്ചർ അവിടം വരെ എത്തിച്ചൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അരങ്ങേറ്റത്തോട് അടുത്തെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങള് നമ്മള് വിളിച്ച് സംസാരിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റി വിളിച്ചത് പിന്നെ അവൾ വീട്ടിൽ കിടന്ന് ഓ പറഞ്ഞോ മിസ്സേ

ആ അതെ അതെ ആ

ആണോ ആ ആണോ ആ ആ ഞാൻ വീട്ടിൽ വന്ന് നിന്ന് കളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആ ഇത്രയും ഒക്കെ പഠിപ്പിച്ച ടീച്ചറോടൊന്ന് അരങ്ങേറ്റം എന്നൊന്നും കുഞ്ഞ് പറയാ ആ പറഞ്ഞൊന്നും ഇല്ല മോള് പഷേ അവിടെ വരെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പ അങ്ങനെ ഒക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായി കാര്യങ്ങള് എങ്ങനെ ഉണ്ട് കുരുത്തക്കേടൊക്കെ വീട്ടിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വന്ന് കിടന്നും എങ്ങനെയാണ് ടീച്ചറിനെ എന്തേലും പറയുകയൊക്കെ ചെയ്യുമോ നമ്മൾ അറിയാൻ വയ്യല്ലോ അവിടെ വന്ന് കിടന്ന് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ഞാൻ പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കിടന്നിങ്ങനെ കിടന്ന് കളിയും ചിരിയും ഒക്കെ ഉണ്ട് അപ്പം ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടുകൊണ്ട് നമുക്ക് ഒരു ഒരിത് ആണോ

ഓ ഓ ആ അപ്പോൾ ഞാൻ എന്നാൽ അടുത്ത ദിവസം ക്ലാസിന് വിടാം മിസ്സേ ആ ശരി എന്നാൽ ശരി